പൊതുവെ വയനാട് ജില്ലയില് തൊഴിലവസരങ്ങളും തൊഴിൽ മേഖലയിലൊക്കെ സ്ത്രീകള് വളരെ കുറവാണ് അതുപ്പോലെതന്നെ ഇവിടെ തൊഴിലവസരങ്ങളും വളരേ കുറവാണ് അത് അതുകൊണ്ടാണ് മറ്റുള്ള ജില്ലകളില് വയനാട് ജില്ലയിൽ നിന്നും ജോലിക്കായും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടുന്നും ഒരുപാട് ആൾക്കാര് മറ്റു ജില്ലകളിലേക്ക് പോകുന്നുണ്ട് ജോലി അന്വേഷിച്ചും ജോലിക്കായും ഒക്കെ എന്നാൽ ഇന്ന് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആദ്യമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു സ്ത്രീക്കാണെങ്കിലും പുരുഷനിക്കാണെങ്കിലും പെൺകുട്ടികള് പഠിക്കാൻ പാടില്ല കെട്ടിച്ചുവിടാനുള്ളതാണ് അതുപ്പോലെതന്നെ കെട്ടിച്ച വീട്ടിലെ പണിയെടുക്കാനുള്ളവരാണ് പെൺകുട്ടികൾ പിന്നെ ആൺകുട്ടികളാണ് പഠിക്കേണ്ടത് അവർക്കാണ് നല്ല ജോലി വാങ്ങേണ്ടത് എന്നുള്ള ഒരു എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു പോയികൊണ്ടിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തില് പൊതുവെ പെൺകുട്ടി ആൺകുട്ടികളെക്കാളും ക്ലാസ്സില് ഒരുപാട് കാണുന്നത് പെൺകുട്ടികളാണ് ഭൂരിഭാഗവും പെൺകുട്ടികളാണ് കൂടുതലും ഏതൊരു ക്ലാസ് എടുത്തു വെച്ചാലും ഏതൊരു ക്ലാസ് റൂമിലാണെങ്കിലും ഭൂരിഭാഗം കുട്ടികളും പെൺകുട്ടികളാണ് എന്നാൽ പഠിച്ചിറങ്ങുന്ന ആ സമയത്ത് ആൺകുട്ടി ആൺകുട്ടികളെയെ കാണാനുള്ളൂ ഈ പഠിച്ച പെൺകുട്ടികളെയൊന്നും കാണാനില്ല അവര് അവരാണെങ്കില് ഒരു പത്തിരുപത് വയസിനു ശേഷം കെട്ടിച്ചു വിടുകയും മറ്റുള്ള ചെക്കൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയും അവിടുന്ന് ചില ചില വീടുകളിൽ ജോലിക്കു വിടാത്ത ഒരവസ്ഥയാണ് കാണുന്നത് പഠിച്ചെന്നു വിചാരിച്ച് പഠിച്ച പഠിച്ചതിനെന്താ ജോലിയെടുക്കണമെന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവർക്കു മുന്നിലെപ്പോഴും ഉദിച്ചു വരും അതുകൊണ്ട് തന്നെ പിന്നെ പെൺകുട്ടികൾക്കൊരുപാട് ഒരുപാട് മാറ്റമുണ്ടാകും ആൺകുട്ടികളിൽ നിന്നും ഇപ്പോഴും ആ വ്യത്യാസം പലയിടത്തും കാണുന്നുണ്ട് പെണ്ണാണ് അടങ്ങി നിക്കണം ഏതൊരു ഏതൊരു അവസരത്തിലും എപ്പോഴും നമ്മള് കേൾക്കുന്നത് പെണ്ണാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പെണ്ണാണ് ഇത് ചെയ്യാൻ പാടില്ല അതൊക്കെ എന്നാൽ ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഒരുപാട് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും മൊത്തത്തിൽ മാറിയിട്ടില്ല നമ്മള് തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത്